ഇത് മുന്ന റെസ്റ്റോറന്റ്ല്ലെ ഞാനവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്ന് കുറച്ച് ഫുഡ്സ് അപ്പം അത് കുറച്ച് കൂടുതലായിപ്പോയി ആ അതെ അതെ അതെ അപ്പം അത് നമുക്ക് കൂടുതലുള്ളത് നമുക്ക് ഒഴുവാക്കുവാൻ വേണ്ടി പറ്റുമോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നെ ആ അതെ അതെ

അതായത് മന്തി ഫുൾമന്തിയായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പം അത് ഒഴുവാക്കിയിട്ട് ഒരു ഹാഫ് മന്തിമതി ആ ഓക്കെ ഓക്കെ ആ പിന്നെ അതിനകത്ത് കോള പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊക്കക്കോള അതൊഴുവാക്കിയിട്ട് എനിക്ക് സ്പ്രൈറ്റ് മതി ആ എഴുന്നൂറ്റി അയ്മ്പത് എമ്മല്ലിൻ്റെ മതി

ഓക്കെ ഓക്കെ ആ ശരി ശരി അങ്ങനെ ആണെങ്കിൽ അത് മാത്രം ഒന്ന് പായ്ക്ക് ചെയ്യ്തിട്ട് കൊണ്ടത്തരുമോ ഒക്കെ ഒക്കെ പെട്ടെന്ന് കൊണ്ടുവന്നു തരണം